ആ ചേച്ചി വരൂ നമസ്കാരം എന്താ വേണ്ടത് അതെയോ ഓക്കെ ഹ്മ് വീട്ടിലേക്ക് ആണോ ഗിഫ്റ്റ് വല്ലതും കൊടുക്കാൻ ആണോ ഓക്കെ ഏത് മോഡൽ ആണ് വേണ്ടത് ഇപ്പോൾ നമ്മടേല് ബ്രാൻഡ് വേണമെങ്കിൽ ഇപ്പം റെഡ്മീൻ്റ ഉണ്ട് പിന്നെ എൽ ജി ഉണ്ട് സാംസംഗ് ഉണ്ട് അതിപ്പോൾ എങ്ങനെയാ റേറ്റ് ബഡ്ജറ്റ് എങ്ങനെയാ നിങ്ങൾ ഉദ്ദേശിക്കണത് ആ ഇപ്പം നമ്മള ബഡ്ജറ്റ് ആ എൽജീൻ്റ മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റ ഏകദേശം പതിനാറെ സംതിംഗ് ആണ് വരണത് അതിൽ ഇപ്പം നമ്മള് നോക്കാണെ ബ്ലുടൂത്ത് ഫെസിലിറ്റി ഉണ്ട് വൈഫൈ ഉണ്ട് പിന്ന ഹോം തീയേറ്റർ കണക്ട് ചെയ്യാം പിന്ന മൊബൈലിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റും ആ ഇതെ ഫെസിലിറ്റീസ് ഉള്ള സാംസംഗിൻ്റ വന്നിട്ട് പതിനെട്ടെ അഞ്ഞൂറ് ആണ് വരണത് സോണീൻ്റ വന്നിട്ട് ഇരുപത്തിരണ്ട് നാനൂറ് സംതിംഗ് വരുന്നുണ്ട് പക്ഷെ അതിന് ഓരോ ഇടത്ത് വാറണ്ടി കൂടുതൽ ഉണ്ട് ഇപ്പം എൽജീൻ്റെയും സാംസംഗിൻ്റയും വന്നിട്ട് മൂന്ന് കൊല്ലം ആണ് വാറണ്ടി സോണീൻ്റ ഒര് നാല് കൊല്ലം ഉണ്ട് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ആണ് അതില് മൂന്ന് കൊല്ലം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും ഒരു കൊല്ലം സർവീസ് ആണ് കമ്പനി സർവീസ് ആണ് സാംസംഗ് എൽജീൻ്റയും പറഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് കൊല്ലം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും ഒരു കൊല്ലം സർവീസും ആ സെറ്റായ് ഇൻസ്റ്റാളേഷൻ്റ കാര്യങ്ങൾ ഒക്കെ നിങ്ങക്ക് വീട്ടിൽ തന്നിട്ട് നമ്മുടെ ആൾക്കാര് ചെയ്തുതരും ഇപ്പോൾ ഇന്ന് സാധനം എടുത്ത് കഴിഞ്ഞാൽ നാളെ നാളെ വൈകുന്നേരത്തിന് ഉള്ളെ അവര് ഇൻസ്റ്റാൾ ചെയ്യണ്ട ആൾക്കാര് വെറും ഇവിടുന്ന് കമ്പനി ഡെലിവറി ഒക്ക ഉണ്ട് അപ്പം അത് ഒന്നും പ്രശ്നം ഇല്ല നമ്മൾ അവിടെ എത്തിച്ചേരാൻ അവിടുന്ന് പിറ്റെ ദിവസം ആൾക്കാര് വന്നിട്ട് അത് ഒക്കെ ചെയ്തേരും മറ്റ് വേറെ എന്തെങ്കിലും വേണോ ഏച്ചി വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ അങ്ങനെ എന്തെങ്കിലും വാഷിംഗ് മെഷീൻ നമ്മക്ക് എത്ര കിലോ വേറെന്നാ പറഞ്ഞെ സാംസംഗിൻ്റയോ ആ ഫ്രണ്ട് ഓപ്പൺ ആണോ വേണ്ടത്

ആ ഓക്കെ നമ്മക്ക് അതിൽ ഇപ്പോൾ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് രണ്ട് പേര് തന്നെ ആണ് ഒന്ന് ഫോർട്ടീൻ തൗസൻഡ് വെരിണ്ട് ഒന്ന് ഫിഫ്റ്റീൻ തൗസൻഡ് വരുന്നുണ്ട് ഫുള്ളി ഓട്ടോമെറ്റിക്ക് അല്ലെ നോക്കുന്നത് ആ ഓക്കെ അപ്പോൾ അതിന് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ആ ഫിഫ്റ്റീൻ തൗസൻഡിൻ്റ അടുത്ത് വരുന്നുണ്ട്

വേറ ഇപ്പം നമുക്ക് നോക്കണ പറഞ്ഞാൽ വേൾപൂളിൻ്റ ഉണ്ട് ഓ അത് കുറച്ച് റേറ്റ് കുറവ് ആണ് അതിന് ഇപ്പോൾ വേൾപൂളിൻ്റ ഒര് ഓഫർ ഉള്ളോണ്ട് ഫോർട്ടീൻ തൗസൻഡ് കിട്ടും അത് സംഭവം അതിന് ഇപ്പോൾ എയ്റ്റീൻ തൗസൻഡ് ആണ് ഒറിജിൻ റേറ്റ് ഇപ്പം ഓഫർ ഉള്ള കാരണം കൊണ്ട് ഫോർട്ടീൻ തൗസൻഡിന് കിട്ടും റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഇതേപോലെ അതിന് ഒരു കൊല്ലത്തേക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട് പിന്ന ആറ് മാസത്തേക്ക് മെയിൻ്റനൻസും ഉണ്ട് വേറ എ സി അങ്ങനത്ത ഏതെങ്കിലും വേണോ ഏച്ചി ആ ഫ്രിഡ്ജ് ഡബിൾ ഡോറ് ഏതിൻ്റ ആണ് എൽജീൻ്റ ആണോ ഇപ്പോൾ ഇതുപോലെ സാർ സാംസംഗിൻ്റയും എൽജീടയും നല്ല മൂവിംഗാ ഇവിടെ എൽജീട അല്ലെ അപ്പം ഇതില് വന്നിട്ട് ഇപ്പം ഡബിൾ ഡോറിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നിട്ട് ആ ഇരുപത്നാലായിരം ആണ് ആ അതിൽ ഇപ്പോൾ അത് ഇപ്പോൾ കളറിന് അനുസരിച്ച് ചെലതിന് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് ഇരുപത്നാലായിരം വരുന്നുണ്ട് മെറൂണിന് പിന്ന വൈറ്റ് ഗ്രേ ആവുമ്പോൾ ഇരുപത്തിയെട്ട് വരുന്നുണ്ട് ഇരുപത്നാല് ആണ് വരുന്നത് മെറൂൺ ആ ഡബിൾ ഡോർ ആണ് ഇപ്പോൾ അത്യാവശ്യം നല്ല മൂവിംഗ് ഇള്ള ഒര് പീസ് ആണ് ഇത് തോന്നുന്ന് എനിക്ക് തോന്നണ ഇനി രണ്ട് രണ്ട് പീസും കൂടെ ഇപ്പം സ്റ്റോക്ക് ഇപ്പം കഴിഞ്ഞ ആഴ്ച വന്നേല് രണ്ട് സ്റ്റോക്കും കൂടെ ബാലൻസ് ഉള്ളു തോന്നുണ്ട് ഓ ഓ ആ ആ ഒര് അത്യാവശ്യത്തിന് നല്ല അതുപോലെ ഇത് വരെ കംപ്ലയിൻറ്റ് ഒന്നും ഇത് വരെ വന്നിട്ടില്ല ഇപ്പോ പോയതില് കംപ്ലയിൻറ്റ് ഒന്നും അത് ആരും പറഞ്ഞ് കേട്ടില്ല ആ അതൊക്ക പേപ്പറും കാര്യങ്ങൾ ഒക്കെ അതിൽ തന്നെ ഉണ്ടാവും അതിന് പ്രത്യേകിച്ച് ഇത് ഒന്നും ഇല്ല പ്രശ്നം ഒന്നും ഇല്ല അഥവാ എന്തെങ്കും കംപ്ലയിൻറ്റ് വന്നാ നമ്മടെ ഏജൻസീല് കൊച്ചുകുടീടെ ഏജൻസീസിൻ്റെ നമ്പറേക്ക് ഒന്ന് വിളിച്ച് തന്നാ ആ ആൾക്കാര് വന്ന് റെഡി ആക്കിത്തരും ഓ മാം എങ്ങന ബില്ല് ഇപ്പോ ഇപ്പം പേ ചെയ്യുന്നുണ്ടോ അതോ ഇ എം ഐൻ്റ വല്ല ഓപ്ഷനും നോക്കുന്നുണ്ടോ ഓക്കെ ആ എന്നാ മാം കൗണ്ടറിലേക്ക് പൊക്കോളൂ ഞാൻ ഇത് പാക്ക് ചെയ്തിട്ട് വണ്ടി അവിട അഡ്രസ്സും കാര്യങ്ങളും എഴുതി കൊടുത്താൽ മതി ഫൈനലി ആ മാം അവിടെ എത്തി ഒര് അര മണിക്കൂറിന് ഉള്ള് വണ്ടി സാധനം അവിടെ എത്തും ഇൻസ്റ്റളേഷന് നാളെ നാള വൈന്നേരത്തിന് ഉള്ള് എന്തായാലും ആൾക്കാര് വെരും ഓക്കെ മാം താങ്ക്യൂ